ആ എനിക്ക് രണ്ട് സഹോദരി ഞാൻ അച്ഛൻ അമ്മ അഞ്ചാളടങ്ങുന്ന ഞങ്ങളെ കുടുംബം നമ്മ എനിക്ക് ഒരു മോൾ എൻ്റെ മൂത്ത ചേച്ചിക്ക് രണ്ട് പെൺപിള്ളേർ രണ്ടാമത്തെ ഏച്ചിക്ക് രണ്ടും രണ്ടും പെൺ ആ അ അങ്ങനെ ഒരു ചെറിയ ഫാമിലി ആണ് ഞങ്ങളത് നമ്മളിൽ എൻ്റെ വലിയ ചേച്ചി പിന്നെ ചെറിയ ചേച്ചി എന്ന് പറഞ്ഞാൽ രണ്ടാളും നല്ല നല്ല ഒരു നില നല്ല ഒരു നിലയിലുള്ള ആൾക്കാരാണ് ആ ഓറെപ്പോലെ അല്ല എൻ്റെ എൻ്റെ ഞാൻ എൻ്റെ ഒരു ക്യാരക്റ്റർ എന്നാ ചേഞ്ച് ഓറ് ഓറ് എന്നു പറഞ്ഞാൽ സെ അങ്ങനെ അധികം ആരോടും സംസാരിക്കാതെ എൻ്റെ വലിയ ചേച്ചി അങ്ങനെ അല്ല വലിയ വലിയ ചേച്ചി എല്ലാവരോടും സംസാരിക്കും ഒരു ഫ്രീ ആൾ ടൈപ് പിന്നെ രണ്ടാമത്തെ ഏച്ചി അങ്ങനെ അല്ല നമ്മളെ ഫാമിലിയിൽ നമ്മളോട് തന്നെ നമ്മളെ വീട്ടിലുള്ള ഒരു ഫാമിലി ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന പുറമെ അങ്ങനെ ആരോടും സംസാരിക്കലില്ല അങ്ങനത്തെ പ്രകൃതം പിന്നെ ഞാൻ എൻ്റ വലിയ ചേച്ചീനെ പോലെ തന്നെ ഞാനും എൻ്റെ അച്ഛൻ ഞങ്ങൾ അച്ഛൻ ഞാൻ എൻ്റെ വലിയ ചേച്ചി നമ്മൾ മൂന്നാളും ഒരേ ഇതാണ് ഞങ്ങൾ സഹോദരങ്ങളത്ര നിലയിലാണുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പിങ് ഹെൽപ്പിങ് മെന്റാലിറ്റിയും എന്തേങ്കിലും ഒരു കഷ്ടപ്പാട് വന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകലും വരലും എല്ലാമുണ്ട് നമ്മളെ ഫാമിലി എന്ന് പറഞ്ഞാൽ അത്ര അത്ര ഒരു നല്ല സന്തോഷമായ ഒരു ഇതാണ് എൻ്റെ ഏച്ചി എനിക്ക് എൻ്റെ വലിയ ചേച്ചീനെ ഭയങ്കര ഇഷ്ടമാണ് എന്താണെന്ന് എന്താണെന്ന് വെച്ചാൽ ഓൾ എൻ്റെ എന്തിനും എന്തൊരു ഓൾക്ക് ഒരു സങ്കടം വന്നാലോ സന്തോഷം വന്നാലോ ആദ്യം വിളിച്ച് എന്നോട് പറയും ഇങ്ങനെ ഇങ്ങനെ സ ഇങ്ങനെ ഇങ്ങനെ സംഭവം പിന്നെ എന്തേങ്കിലും ഒരു ചെറിയ പരിപാടി കൂടുമ്പോൾ അപ്പോൾ വിളിക്കും ആ വിളിച്ചിട്ട് പറയും നീ വി നാ വീട്ടിലേക്ക് നമുക്ക് ഇന്ന് വീട്ടിൽ കൂടാം പിന്നെ ഓളെ ഹസ്ബൻഡ് ഓളെ ഹസ്ബൻഡ് ഇപ്പം ഇവിടെയില്ല വിദേശത്താണുള്ളത് അപ്പോൾ ഓളെ ഹസ്ബൻഡ് ഉള്ള സമയത്തങ്ങനെ ഓൾ ഓളെ വീട്ടിലേക്ക് എന്തേങ്കിൽ ഒരു ഫംഗ്ഷൻ വെച്ചെങ്കിൽ ആദ്യം വിളിക്കും നിങ്ങൾ വരുന്നോ എന്താക്കുന്ന് നീ ബെരുന്നാ നമുക്ക് ഒരൂസം കൂടാം അങ്ങനെ എല്ലാം പറയും പിന്നെ ഒരു സൺഡേ നമുക്ക് ലൈഫിൽ കിട്ടുന്ന ഒരു സൺഡേ ഏകദേശം എൻ്റെ ഇപ്പോൾ എൻ്റെ വലിയ ചേച്ചി മാരേജ് ചെറിയ ചേച്ചി മാരേജ് കഴിഞ്ഞു എല്ലാവരും അവരുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ സെറ്റിൽ ആയിട്ടുണ്ട് അപ്പോൾ എപ്പേങ്കിൽ ഒരിക്കൽ ഒരു ശനിയാഴ്ച ഞായറാഴ്ച രണ്ട് ലീവ് ആ രണ്ട് ലീവിൽ ചിലപ്പോൾ നമ്മൾ അമ്മയുടെ വീട്ടിലൊക്കെ വരും വരുമ്പോൾ വിളിച്ചു ചോദിക്കും നിങ്ങൾ വരുന്നോ നമുക്ക് ശനിയാഴ്ച വീട്ടിൽ പോവാം ഞായറാഴ്ച വരാം അങ്ങനെ നമ്മൾ പ്ലാൻ എല്ലാം ആക്കിയിട്ട് ഒരു വീട്ടിലേക്ക് പോകും ഒന്നിച്ച് ആ അന്നത്തെ ഒരു ദിവസം എന്തോ ഒരു രസം എന്താണ് പറഞ്ഞാൽ നമ്മളും ആ ഞാനും എൻ്റെ രണ്ട് സഹോദരികളും പിന്നെ ഞങ്ങളെ പിള്ളേരും എല്ലാം ഒന്നിച്ച് ആ വീട്ടിൻ്റെ ഉള്ളിൽ എന്തോ എന്തോ ഒരു രസം പിന്നെ എൻ്റെ ഏച്ചി അങ്ങനെ ഓൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു ജനത ഹോസ്പിറ്റലിലാണ് ഓൾ വർക്ക് ചെയ്യുന്നത് ആ നഴ്സ് ആയിട്ട് എൻ്റെ വലിയ ചേച്ചി കാഷ്യൂ ഫാക്ടറി ഈ അവിടെ വർക്ക് ചെയ്യുന്നു ഞാനിപ്പോൾ ഡിഎക്സ്ൻ എന്നു പറയുന്ന ഓഫീസിൽ വർക്ക് ചെയ്യുന്നുണ്ട് ആ പിന്നെ എൻ്റെ ഏച്ചിമാറും ഞാനും തമ്മിലുള്ള വ്യത്യാസമെന്ന് പറഞ്ഞാൽ ഓറ് ആൾ ഭയങ്കര ആൾ സ്ട്രോങും സ്ട്രിക്റ്റും സ്ട്രിക്റ്റ് എന്നെപ്പോലെ ഒരു കെയർലെസ് ഉള്ള ആൾക്കാർ അല്ല ആനക്ക് ആനക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ഒരു കൺ ഒരു ഇങ്ങനെ എടുത്തൊക്കെ അങ്ങനെത്തെയൊരു ചിന്ത ഒന്നും ഇല്ല ചെറിയ വയസ്സിലെ കല്യാണം കഴിഞ്ഞു ആ ലൌവ് മാരേജ് ആയിരുന്നു ആ സമയത്ത് അങ്ങനെയെല്ലാമായിട്ട് എൻ്റെ കല്യാണം കഴിഞ്ഞു കുറേ സമയം നമ്മൾ വീട്ടിൽ പോവാതെ സംസാരിക്കാതെ അങ്ങനെ എല്ലാം നിന്നു ആ ഒരു ഒരു പ്രഗ്നൻസി ആയ സമയത്തെല്ലാം ശരിയായി ഞാൻ എൻ്റെ വീട്ടിൽ പോയി ആ എൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെ ശരിയായി സംസാരിച്ചു ഇപ്പോൾ നമ്മൾ ഹാപ്പി ആയിട്ട് എല്ലാവരും നല്ലതിൽ ഹാപ്പി ആയിട്ടുണ്ട് അന്നത്തെ സമയത്ത് ആ ഒരു തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ പിന്നെ അതുകൊണ്ടിപ്പോൾ അങ്ങനെത്തെ ഒരു ഇതൊന്നുമില്ല നല്ലതിലുണ്ട് നമ്മൾ എല്ലാവരും പോകലും വരലും എല്ലാമുണ്ട് പിന്നെ എൻ്റെ ഏച്ചി നല്ല ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്നു ഓൾ അങ്ങനെ ആ ആൾ നല്ലതാണ് പക്ഷേ ഞങ്ങളെപ്പോലെ അങ്ങനെ ഫ്രീ ഞാനും എൻ്റെ വലിയ ചേച്ചിയെപ്പോലെ അത്ര ഫ്രീ അല്ല ആ പിന്നെ ഇപ്പോഴെന്ന് വെച്ചാൽ ഞാൻ എനിക്കങ്ങനെ എടുത്തുവെച്ചിട്ടുള്ള ശീ ശീലമൊന്നുമില്ല ഓറ് അങ്ങനെയല്ല എടുത്തുവയ്ക്കും അങ്ങനെ കെയർലെസ് ആക്കല്ല എനിക്ക് ഞാൻ കുറച്ച് ആൾ നല്ല ഫ്രീ ആണ് അനക്കിങ്ങനെ ഇങ്ങനെ എന്തേങ്കിലും ഒന്ന് കിട്ടിയാൽ എക്സാബിൾ തന്നെ ഞാൻ പറയാം സാലറി കിറ്റിയെന്ന് വിചാരിക്കുക അപ്പം എനിക്ക് അപ്പം തന്നെ പുറത്തു പോകനം ഔട്ടിങ് പോകണം പിള്ളേരെ കൂട്ടും ഞാൻ ഏച്ചിൻ്റെ പിള്ളേരെ കൂട്ടും കൈയ്യിലൊന്നും നിൽക്കില്ല ഓറെ കൂട്ടും ഹോട്ടൽ പോകും ഫുഡ് ആക്കും ആ നമ്മൾ മാത്രം ഫുഡ് കഴിച്ചങ്ങു പോരല്ലോ വീട്ടിലൊക്കെ പോകുമ്പോൾ ഓർക്ക് എടുത്തുകൊണ്ട് പോകും പിന്നെ എന്തെങ്കിലും ഒരു എടുക്ക് എടുക്ക് എന്തെങ്കിലും ഒരു ചെറിയ പൈസ കിട്ടിയെങ്കിൽ ഞാൻ എൻ്റെ ആദ്യം ഞാൻ വിളിക്കുക എൻ്റെ വലിയ ചേച്ചീനെ ഇപ്പം നേരം ഫ്രീ ഉണ്ടോ നമുക്കിന്ന് പുറത്തു പോകാം ഓൾ ആ ഓക്കെ റെഡി ഓൾ പറഞ്ഞെങ്കിൽ നല്ലോണം കഷ്ടത്തിലുള്ളതാണ് ഓളെ ഓൾ ഒരു മാരേജ് എല്ലാം കഴിഞ്ഞിട്ട് പിള്ളെർ എല്ലാം ആയിട്ട് ഓളെ വീടെല്ലാം എന്തെല്ലാമോ പ്രശ്നമായിട്ട് വീടെല്ലാം ജപ്തി ആയിട്ട് പോയി ഇപ്പോൾ ഞങ്ങളെ വീട്ടിൽ തന്നെയാണ് ഉള്ളത് അപ്പോൾ ആ ഒരു മെന്റൽ മേ ഓളൊരു സ്റ്റേജ് എന്ന് ഓളിപ്പോൾ ഞങ്ങൾ ഇപ്പോൾ അങ്ങനത്തെ ഒരിതുണ്ടെങ്കിൽ ഓൾക്ക് അങ്ങനത്തെ ഒരു വിഷമം ഇല്ല അങ്ങനത്തെ ഞാനങ്ങനെയുണ്ട് ഓൾ ഹാപ്പി ആയിട്ടുണ്ടാകും എന്നെപ്പോലെ തന്നെ എനിക്ക് അങ്ങനെ ആയിരം വിഷമം ഉണ്ടാകും എന്നെങ്കിലും ഞാനും അതൊന്നും മൈൻഡ് ആക്കലില്ല നമുക്ക് നല്ല ഫ്രീ ആയിട്ട് തന്നെ ഉണ്ടാകും പിന്നെ അങ്ങനെ വിളിക്കും അങ്ങനെ ഔട്ടിങ് പോകും പുറത്തുപോകും പിന്നെ ഓൾ അങ്ങനെ എനിക്ക് എന്തൊരു കഷ്ടം വന്നെങ്കിൽ ഞാനാദ്യം വിളിച്ചിട്ട് ഒളോട് പറയും ഏച്ചി എനിക്ക് ഇങ്ങനെ ഇങ്ങനെ ആയിനി എനിക്ക് ഇങ്ങനെ ഇങ്ങനെ ഉണ്ടെന്ന് ഓളോട് പറയും അപ്പോൾ ഓൾ രണ്ട് സമാധാന വാക്ക് പറയുമ്പോൾ അപ്പോൾ അതെനിക്ക് സമാധാനമാകും പിന്നെ എൻ്റെ അച്ഛനങ്ങനെ അമ്മയുമങ്ങനെ ഓറ് അത് അമ്മ ഡോക്ടറെ വീട്ടിൽ പണിക്ക് പോകുന്നു അച്ഛൻ അച്ഛനും ഡോക്ടറെ വീട്ടിൽ തന്നെയാണ് ഓറ് നമ്മൾ ആ ഒരു ഫാമിലി എന്നു പറഞ്ഞ് അങ്ങ് ആരും ഒരിതില്ലാതെ നമ്മളായി തന്നെ ജീവിക്കുന്നു എന്താണ് പറഞ്ഞെങ്കിൽ രണ്ട് വീടുണ്ട് ഞങ്ങൾക്ക് അതിലൊരു വീട്ടിൽ എൻ്റെ അച്ഛൻ്റെ പിന്നെ ആ സോറി അമ്മേന്റെ ഇത് അനിയനും അനിയൻ്റെ ഭാര്യയും രണ്ട് പിള്ളേരും അങ്ങനെ ഒരു വീട്ടിൽ ഒരു വീട്ടിൽ നമ്മളുള്ളത് അങ്ങനെ ടോട്ടൽ ആയിട്ട് നമ്മളെല്ലാവരും ഒരു ജോയിന്റ് ഫാമിലി ആണ് പിന്നെ എൻ്റെ സഹോദരങ്ങളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഏച്ചിമാരെ എനിക്ക് നല്ലവണ്ണം നല്ല നല്ല ഇഷ്ടമാണ് എന്താണ് പറഞ്ഞെങ്കിൽ അത്ര എന്നെ കെയറിങ് ചെയ്യും എന്തെങ്കിൽ ഒരു സിറ്റുവേഷൻ എന്തെങ്കിൽ ഒരു കഷ്ടപ്പാട് വന്ന് ഞാൻ നല്ലവണ്ണം കഴിയാതായി എന്നുണ്ടെങ്കിൽ എന്നെ വിടില്ല കൈവിടില്ല എൻ്റെ ഒപ്പരെന്നെ നിൾക്കും ചേർത്ത് പിടിക്കും പിന്നെ ഏടെങ്കു ഒരു സ്ഥലത്തൊക്കെ പോ ഏടെങ്കു പോകുകയാണെങ്കിൽ ഞാൻ ഒറ്റക്ക് ആക്കിയിട്ട് ഓറ് എവിടെ പോകില്ല എന്നെ വിളിക്കും നീ വരുന്നോ നമ്മൾ പോവാം എല്ലാം ഒരു പ്ലാനിംഗ് ആക്കിയിട്ട് നമ്മൾ ഒരുമിച്ചേ പോവത്രെ ഓളങ്ങനെ ഇപ്പം ഒരു പിന്നെ ഞങ്ങളേൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങനെ എഡ്യുകേഷൻ ഇല്ല ഞാൻ എസ് എസ് എൽ സി അത് കഴിഞ്ഞിട്ട് ആ ആ സമയത്തെന്ന് പറഞ്ഞാൽ മുൻപത്തെ സമയത്ത് ഞങ്ങളെ അങ്ങനെ പഠിപ്പിക്കുകയൊന്നുമില്ലല്ലോ ഞങ്ങൾക്ക് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമുണ്ടായി പടിപ്പിച്ചിട്ടാണ് എസ് എസ് എൽ സി കഴിഞ്ഞപാട് അച്ഛൻ്റെ പ്രാരാബ്ധ ദാരിദ്ര്യം കൊണ്ട് ഞങ്ങളെ പണിക്കയച്ചു ഞാന് സ്റ്റുഡിയോയിലാണ് വർക്ക് ചെയ്തോണ്ടായേ ഒരു രണ്ടുമൂന്ന് കൊല്ലം സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു റിലേഷൻ ആയി ഞാൻ ആ ഓരോടൊപ്പം പോയി ഇപ്പോൾ വേറെന്നെ വർക്ക് ചെയ്യുന്നുണ്ട് എൻ്റെ വലിയ ചേച്ചി അങ്ങനെ ഓൾ എസ് എസ് എൽ സി ഫയിൽ ആയി അങ്ങനെ ഓളെ കാഷ്യൂ ഫാക്ടറിയിൽ പണിക്കയച്ചു എന്നാൽ എൻ്റെ ചെറിയ ചേച്ചി അങ്ങനെ അല്ല ഓൾ ഓളെ തർക്കത്തിൽ ഓൾ എസ് എസ് എൽ സി ഫസ്റ്റ് ഡിസ്ടിങ്ഷനോടെ പാസ് ആയി പ്ലസ് ടു അങ്ങനെ തന്നെ ഡിഗ്രീ ഓൾ ഡിഗ്രീ എടുക്കാൻ പറ പ്ലസ് ടു എങ്ങനെ ആക്കി ഓൾ ആക്കിയിട്ട് എൻ ടി ടി സി പഠിച്ചു ടീച്ചർ ട്രെയിനിങ് പോയി ടീച്ചർ ആയി അതുകഴിഞ്ഞിട്ട് ഇപ്പം മെഡിസിൻ്റെ പഠിച്ചിട്ട് ഓൾ മേ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ ആ ഏകദേശം എല്ലാവരും ഒരു സെറ്റിൽ ആയ ഫാമിലി ആണ് അത് അതുകൊണ്ട് പിന്നെ അനക്ക് എൻ്റെ ഏച്ചിമാരെന്ന് പറഞ്ഞെങ്കിൽ തീർന്നു ഓറെ എന്തൊരു എന്തൊരു പ്രതിസന്ധി ഘട്ടിലാവട്ടെ ഘട്ടത്തിലാവട്ടെ എന്തിലായെങ്കു എന എനിക്ക് ഒരു സഹായം ചെയ്യാനെൻ്റെ ഏച്ചിമാരേ ഉള്ളൂ ഞാനെന്ത് സങ്കടം വരുമ്പോൾ ആവട്ടെ എന്ത് എന്തൊരു കാര്യത്തിന് ഓറ് എൻ്റെ ഒന്നിച്ച് നിൽക്കും എനിക്ക് എൻ്റെ ജീവാ ഞാനെൻ്റെ എൻ്റെ മോ എനിക്ക് എന്തോ ഒരു എൻ്റെ എല്ലാവരെയായിട്ടും എനിക്ക് രണ്ട് ചേച്ചിമാരുണ്ട് മാത്രം കൈയ്യിൽ എൻ്റെ ഇഷ്ടം എനിക്ക് എൻ്റെ മൂത്ത ഏച്ചിനെയാണ് ഓറെ ഓളെ എനിക്ക് എന്തോരിഷ്ടമാണ് ആ ഇപ്പോൾ തന്നെ കുറച്ചു നേരത്തെ വിളിച്ചിട്ട് വെച്ചതേ ഉള്ളൂ നമ്മളവിടെ അമ്പലത്തിൽ വാർഷികം ഉണ്ട് നീ വരുന്നോ നമുക്ക് പോവാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് വെച്ചു ഞാൻ ഓഫീസിലുണ്ടെടോ പറയുമ്പോൾ ഓഫീസ് ഒന്നും പ്രശ്നമല്ല നീ ഉച്ചയ്ക്ക് വാ നമ്മൾ രണ്ടാളും ഒപ്പം പോവാം എന്നെല്ലാം പറഞ്ഞിട്ട് വെച്ചു അല്ലെങ്കിൽ ബൈന്നേരം ബാ എന്നെല്ലാം പറഞ്ഞു ആ അതെന്തൊരു എന്തെങ്കിലും ഓൾക്ക് എന്തുണ്ടെങ്കിൽ ഓൾ വിളിച്ചിട്ട് എന്നോട് പറയും എനിക്ക് അങ്ങനെ നല്ലവണ്ണം ടെൻഷൻ ആകുന്ന സമയത്ത് ഇങ്ങനെ വിഷമം വരുന്ന സമയത്ത് മനസ്സ് തുറന്നിട്ട് സംസാരിക്കാൻ എനിക്കെൻ്റെ ഏച്ചിമാരെ ഉള്ളൂ ഏച്ചിമാ നമുക്കിപ്പോൾ നമ് നമുക്ക് സഹോദരങ്ങൾ എന്നു പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വലിയ ഒരു ഭാഗ്യം എല്ലാവർക്കും അത് കിട്ടണമെന്നില്ല അന്നെങ്കി നമ്മൾ മുൻപ് ചെറുതുണ്ടാകുമ്പോൾ അങ്ങനെ ഉണ്ടായിട്ടാണ് അങ്ങോട്ടുമിങ്ങോട്ടും കലമ്പാക്കിക്കൊണ്ട് തല്ലാക്കിക്കൊണ്ട് എല്ലാ ഉണ്ടായി പിന്നെ അപ്പോൾ ഞങ്ങ ബേറെ ഒരാളെ കണ്ടിരുന്നു നമ്മൾ ആശിക്കലുണ്ട് എന്ത് ശോ അങ്ങനത്തെ ഒരേച്ചിനെ കിട്ടീനെങ്കിൽ അങ്ങനത്തെ ഒരനിയനെ കിട്ടീനെങ്കിൽ അങ്ങനെ എത്രയോ പ്രാവശ്യം വിചാരിച്ചിട്ടുണ്ട് ഞാന് ഞങ്ങൾക്ക് ഏട്ടന്മാർ വേണമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഒരു സമയത്ത് ഞാൻ നല്ലവണ്ണം ആശിച്ച സമയമുണ്ട് പക്ഷേ കുറച്ച് നമ്മൾ നമ്മൾ ഒരു ഏജിലെത്തിയപാട് നമ്മൾ അങ്ങോട്ടുമിങ്ങോട്ടും സ്നേഹിക്കാൻ തുടങ്ങി ഇപ്പോൾ അത്ര ഒത്തൊരുമയിൽ ജീവിക്കാൻ തുടങ്ങി എന്തുണ്ടെങ്കിലും നമ്മൾ അങ്ങോട്ടുമിങ്ങോട്ടും വിട്ടുകൊടുക്കാതെ നല്ല സ്നേഹത്തോടെ നല്ല ഒരു ഫാമിലി ആയിട്ട് നല്ല ഒരു നല്ലത് പറഞ്ഞെങ്കിൽ നല്ലത് ഇപ്പോൾ അനക്ക് ഓറില്ലാതെയും ഓറ് ഞങ്ങക്കില്ലാതെയും ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥായീന് പോകലും വരലും എവിടേലും പോകാനുണ്ടാകും ഇപ്പോൾ മിനിഞ്ഞാന്നിടക്കെല്ലാം നമ്മൾ ഒരു ടൂർ എല്ലാം പോയി വന്നു അത്രയും നല്ല ഫാമിലി ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് നമ്മൾ അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെക്കുറിച്ചിട്ട് പറയാനാണെങ്കിൽ എനിക്കിത്രയേ ഉള്ളൂ നല്ലൊരു സഹോദരങ്ങളാണ് എന്റെ വലിയ ഒരു ഭാഗ്യമാണ് ഇത് ഇങ്ങനത്തെ ഒരു സഹോദരന്മാരെ കിട്ടിയത്